പാലക്കാട് ജില്ലയില് എല്ലാ സീസൺ ആണെങ്കിലും ഇപ്പോൾ മഴക്കാലം ആണെങ്കിലും വേനൽക്കാലം ആണെങ്കിലും അതേപോലെ എല്ലാ സീസണിലും നല്ല കാറ്റ് കാലമാണെങ്കിലും എല്ലാ സീസണിലും നല്ല സീസൺ ഒക്കെ തന്നെയാണ് പക്ഷേ അത് കറക്ട് ആയിട്ട് കിട്ടാറുണ്ട് പക്ഷേ മഴ മാത്രമാണ് അധികവും കുറച്ചു കമ്മി പണ്ടത്തെ കാലത്തൊക്കെ മഴ നന്നായി കിട്ടുമായിരുന്നു എല്ലാം കറക്ട് അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം മൂലം തന്നെ നമുക്ക് മഴ കുറച്ച് കമ്മിയാണ് കിട്ടുന്നത് അതേപോലെ വെയിൽ ആണെങ്കിൽ ചൂടുകാലമാണെങ്കിൽ ഏറ്റവും കൂടുതൽ താപനില സെൽഷ്യസ് ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല പാലക്കാടാണ് കാരണം നാല്പത്തിരണ്ട് നാല്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കൂടിയിട്ട് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ താപനില കൂടുതലുള്ളത് പാലക്കാട് ജില്ലയിലാണ് അത് പാലക്കാട് ജില്ലയിൽ ഇതുപോലെ പൊള്ളലേറ്റിട്ടൊക്കെ ഉണ്ട് പലർക്കും സൂര്യാതാപം ഏൽക്കാറൊക്കെ ഉണ്ട് ഉച്ചയ്ക്കുശേഷം പുറത്തിറങ്ങരുത് എന്നൊക്കെ ഗവൺമെന്റ് ആണെങ്കിലും ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഒക്കെ പറയാറുണ്ട് അത്രയും ചൂടുള്ള കാലാവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് മഴ ഈ ഈ ഈ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ മഴ കുറച്ച് കമ്മിയാണ് വെള്ളപ്പൊക്കം ഒന്നും ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല അതേപോലെ മറ്റേ രണ്ടായിരത്തിപ്പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നപ്പോഴും ഇങ്ങോട്ടൊന്നും വെള്ളപ്പൊക്കം ഒന്നും ഇവിടെ ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല അതേപോലെ ശീതകാലം ആണെങ്കിലും ഡിസംബർ ഫെബ്രുവരി ഈ മാസങ്ങളിലൊക്കെ നല്ല കാലാവസ്ഥ ഒക്കെ തന്നെയാണ് അധികവും ഇവിടെ കാണാറുള്ളത് കഠിന വേനൽ ആണ് കൂടുതലും പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെടുന്ന ഒന്ന് വേനൽ പറയുമ്പോൾ നമ്മുടെ കൃഷി ഭൂമികളൊക്കെ ഭൂമികളൊക്കെ വിണ്ട് വിളറി നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെ വിണ്ട് അത്രയും ചൂടായിരിക്കും വെള്ളം ലഭ്യത വെള്ളത്തിൻ്റെ ലഭ്യത കുറയും കിണറൊക്കെ വറ്റും അതേപോലെ വെള്ളം കിട്ടാണ്ട് ആകുക ഇങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് കാലത്ത് എല്ലാം വളരെ സുലഭമായി ലഭിച്ചിരുന്ന ജില്ല പാലക്കാട് ആയിരുന്നു പക്ഷേ ഇപ്പോൾ വെള്ളത്തിൻ്റെ ഇഷ്യൂ ആണ് കൂടുതലും പാലക്കാട് ജില്ല അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം